കൊല്ലം ജില്ലയിലെ പഠന അവസരങ്ങള് വളരെ വിശാലമായ സാധ്യതയുള്ള പഠന സാധ്യത ഉള്ളൊരു ജില്ലയാണ് കൊല്ലം എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഹൈ സ്കൂള് സംവിധാനങ്ങളും അതില്ത്തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്കൂളുകളില് പ്ലസ് റ്റൂ സംവിധാനവും ജില്ലയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ് പ്ലസ് റ്റു കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം ഹയര് സ്റ്റഡീക്ക് വേണ്ടി ധാരാളം കോളേജ് സംവിധാനങ്ങള് ജില്ലയുടെ വിവിധ ഭാഗങ്ങളില് ഉണ്ട് കൊല്ലം ടൗണ് കേന്ദ്രീകരിച്ച് തന്നെ അഞ്ച് കോളേജുകള് ഓളം ഉണ്ട് കൊട്ടാരക്കരയില് ഒരു കോളേജ് ഉണ്ട് പുനലൂരില് ഒരു കോളേജ് പ്രവര്ത്തിക്കുന്നുണ്ട് അഞ്ചല് ഒരു കോളേജ് പ്രവര്ത്തിക്കുന്നുണ്ട് ആയൂര് ഒരു കോളേജ് പ്രവര്ത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ള കോളേ ക്യാമ്പസ് കോളേജ് ക്യാമ്പസുകള് കൂടാതെ ചെറിയ കോഴ്സുകള് ചെറിയ ഹ്രസ്വകാല കോഴ്സുകള് പഠിപ്പിക്കുന്ന ഇന്സ്ട്യുട്ട് ഇന്സ്റ്റിട്ട്യൂട്ടുകളും ധാരാളം നമ്മുടെ ജില്ലയില് ഉണ്ട് കൊല്ലം ജില്ലയിലുണ്ട് പിന്നെ ടെക്നിക്കല് മേഖലയിലേക്ക് തിരിഞ്ഞാൽ നിരവധി ടെക്നിക്കല് ഇന്സ്റ്റിടൂട്ടുകള് കൊല്ലം ജില്ലയിൽ

അപ്പോള് ഇങ്ങനെയുള്ള സ്ഥാപങ്ങളിലൊക്കെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ടെക്ക്നിക്കല് എജ്യൂക്കേഷനു ഒക്കെ നടത്താന് സാധിക്കുന്നത് ജില്ലയുടെ സമഗ്രമായ വളര്ച്ചക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാന് കഴിയും ബീ എഡ് കോളേജുകളും ടീച്ചര് ട്രെയിനിങ് സെന്ററുകളുമൊക്കെ അനുബന്ധമായിട്ട് ഇവിടെ പ്രവര്ത്തിച്ച് വരുന്നുണ്ട് പിന്നെ ചില ട്രെയിനിങ് അക്കാഡമികള് അങ്ങനെയൊക്കെ ഉള്ള സംവിധാനം ഒക്കെ ഈ മേഖലയിൽ സജീവമായിട്ട് തന്നെ പ്രവര്ത്തിക്കുന്നു പീ എസ് സി കോച്ചിങ് സെന്ററുകളും എണ്ട്രെന്സ് സെന്ററുകളുമൊക്കെ മികച്ച രീതിയില് കൊല്ലം ജില്ലയില് പ്രവര്ത്തിക്കുന്നു പ്രവര്ത്തിക്കുന്നുണ്ട്

നാടിന്റെ സര്വ്വദോത്മുകമായ വികസനത്തിന് അടിസ്ഥാനമാകും എന്നുള്ള കാര്യത്തില് യാതൊരുവിധമായ തര്ക്കവും ഉള്ളതല്ല ഓക്കെ